പതിനഞ്ച് നാല് രണ്ടായിരം ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഇരുപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്